ഇന്ത്യയിലുള്ളവർക്ക് ചായ വളരെ ഇഷ്ടവാണ് പലതരം ചായകൾ നമുക്ക് ഇന്ത്യയിൽ വന്നാൽ കേൾക്കാൻ പറ്റും എൻ്റെ വീട്ടിൽ ഞാൻ ചായണ്ടാക്കാൻ ഒരു കപ്പ് വെള്ളമാണെങ്കിൽ അതിനനുസരിച്ച് തന്നെ ഒരു കപ്പ് തന്നെ പാൽ എടുക്കണം രണ്ടും സമാസമം ചേർത്തതിന് ശേഷം അത് തിളച്ച് വരുന്ന സമയത്ത് ചായ പൊടി ആഡ് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ ഒരു ചതച്ച ഏലക്ക കൂടെ ഇടും അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ തന്നെ ഞാൻ ബ്ലാക്ക് ടീ ഉണ്ടാക്കും ഞാൻ കട്ടൻ ചായ കുടിക്കുന്നൊരാളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടവും കട്ടൻ ചായയാണ് അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി അത് വേറെ തന്നെയാണ് കട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞാൽ ആ ചായയിൽ ഞാനിടുന്നത് ഒരു ഒരു പീസ് ചുക്കിടും വെള്ളം ഒരു എൻ്റെ ആവശ്യത്തിന് എടുക്കും അത് തിളച്ച് വരുമ്പോഴെക്കും ചായപ്പൊടി ഇടും അതിൻ്റെ കൂടെ തന്നെ ഒരു ചുക്കും കൂടെ ഇടും ഞാൻ ഷുഗർ ആഡ് ചെയ്യാറില്ല പഞ്ചസാര ഞാൻ ഉപയോഗിക്കാറില്ല അതിന് പകരം ഞാൻ ശർക്കരയാണ് ഉപയോഗിക്കാറ് ചുക്ക് കാപ്പി ചുക്ക് ചായ എന്നൊക്കെ പറയും കാപ്പിയാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരുക